ബാങ്കില് നിന്നു ഞാന് ഇതുവരെ ലോണ് എടുത്തിട്ടില്ല എനിക്ക് ലോണ് എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല എന്റെ അമ്മയ്ക്കും അച്ഛനും ലോണ് ഒക്കെ എടുക്കേണ്ടി വന്നേനെ ആ കുഴപ്പമെന്നുമില്ല നല്ലതാണ് ബാങ്കിലൊക്കെ പക്ഷെ അച്ഛന് ലോണ് കിട്ടിയിട്ടൊന്നും ഇല്ല എന്തൊക്കെയോ പ്രശ്നങ്ങള് അവർ പറയുന്ന ഓരോന്നൊക്കെ കുറെ ഉടായിപ്പ് നൃായങ്ങള് ഒക്കെ പറഞ്ഞ് അങ്ങനെ ഒക്കെ ഓരോന്ന് എനിക്ക് വലിയ താത്പര്യമൊന്നും ഇല്ല നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കരുത് സാധാരണക്കാര്ക്ക് തരാന് പറ്റുന്നതാണെങ്കില് നിങ്ങള് തരണം തരാം തരാം തരാം തരാം തരാന്ന് പറഞ്ഞിട്ട് പറ്റിക്കരുത് അങ്ങനെ ഒരുപാട് പേർക്ക് അതാകണം ഇതാകണം എല്ലാം നമ്മള് ചെയ്യുമ്പം ഓരോ നടപടി ക്രമങ്ങള് ഉണ്ടാവും ഇല്ല എന്നൊന്നും അല്ല പറയുന്നത് പക്ഷേ എന്നാൽ പോലും ഒരു കണ്സിഡറേഷന് ഒന്നും തരില്ല വയസായ ആള്ക്കാരൊക്കെ പോയാലൊന്നും അവർ എന്താണ് അങ്ങനെ